ഈ പിന്നെ മീനിന് എത്രയാണ് മീൻ മാർക്ക

ഞങ്ങൾക്ക് ആവോലിക്ക് എത്രയാണ് അയ്ക്കൂറയോ

ആ നാനൂറ്റി എൺപതോ പിന്നെ ആ ഞണ്ട് ചെമ്മീൻ ഒക്കെയോ ചെമ്മീനോ

പിന്നെ ചൂത എനിക്ക് വൈറ്റ് കളർ മതി അതെ അതെ അതെ ഒരു അഞ്ച് കിലോ ആ അതിൻ്റ ഒരു അയ്ക്കൂറയും വേണം അത് കറി വയ്ക്കാൻ ആണേ വേറെ പിന്നെ ഇതില്ലേ ചെമ്മീൻ ഒരു രണ്ട് കിലോ ഒന്ന് എടുത്തോ മത്തി നോക്കട്ടെ മത്തി വേണോ എന്ന് നോക്കട്ടെ മത്തി നല്ലതാണോ എന്ന് നെയ് നെയ് മത്തിയും നെയ് മത്തിയും ഒരു ഒരു കിലോന് എടുത്തോ അയില വേണ്ടാപ്പാ വേണ്ട അയില വേണ്ട ഇത് ഇത്രയും സാധനം മേടിച്ചില്ലെ അയില വേണ്ട

വേണ്ട ഇത്രയും സാധനങ്ങൾ മതി ഏ ഏട്ട ഉണ്ടോ ഏട്ട ഒരു ഏട്ട മുറിക്കാതെ ഏട്ട ഒറ്റ ഒന്ന് ഒന്ന് തൂക്കിക്കോ ആ ആ തൂക്കിക്കോ തൂക്കിക്കോ മീഡിയം സൈസിൽ മതി ആ നിങ്ങൾ ഡെലിവറി ആയിട്ട് കൊണ്ട് തന്നേക്ക്

ആ ആ ചെയ്തോളാം ശരി ഓക്കെ